പ്രഷർ കുക്കറാണ് നമുക്ക് എളുപ്പമുള്ളതാണ് പെട്ടെന്നു തന്നെ നമുക്ക് കുറച്ച് കിഴങ്ങ് പരിപ്പ് സാമ്പാറ് വെക്കാനാണെങ്കിലും നമുക്ക് പെട്ടെന്നു പ്രഷർ കുക്കറിനകത്ത് കഷ്ണങ്ങളെല്ലാമിട്ട് നമുക്ക് പെട്ടെന്നു വേവിച്ചെടുക്കാൻ പറ്റും തുറന്ന പാത്രത്തിലാണെങ്കിൽ ഒരുപാട് സമയം എട് എടുക്കും തുറന്നിരുന്നിട്ട് അതിനകത്ത് ആവി കയറി അതു വേകാനായിട്ട് കുറേ സമയമെടുക്കും അതിനെ അപേഷിച്ച് പ്രഷർ കുക്കർ വളരെ ഈസി ആയിട്ട് നമുക്കുപയോഗിക്കാൻ പറ്റും നമുക്കു പെട്ടെന്നു ജോലിക്കാരൊക്കെയാണെങ്കിലുമതെ സ്കൂളിൽ പിള്ളേരെ സ്കൂളിൽ വിടണ സമയത്താണെങ്കിലും പെട്ടെന്നു പ്രഷർ കുക്കറിനകത്ത് നമുക്ക് സാമ്പാർ അങ്ങനത്തെ എന്തെങ്കിലും കഷ് വേവിക്കാനൊ കിഴങ്ങ് പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കു പെട്ടെന്നു പ്രഷറിനെ അപേ ത്ത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്നു എളുപ്പത്തിൽ നമുക്കു വെ വെന്തു കിട്ടും അതെ സമയം തുറന്ന പത്രങ്ങളിലൊക്കെ വെക്കുക വെച്ചു നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അത് കുറേ സമയം നഷ്ടമെടുക്കും ഇങ്ങനെ ഗ്യാസ് നഷ്ടം ഇങ്ങനെ കുറേ ടൈമെടുക്കും അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം സാധാരണ രീതിയിലെല്ലാവരും എളുപ്പത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് പ്രഷർ കുക്കറാണ് അതു കൊണ്ട് നമുക്കേറ്റവും എളുപ്പമുള്ള സമയമൊക്കെ പെട്ടെന്നു കാര്യം നടക്കാനും പെട്ടെന്നു കാര്യങ്ങൾ ഭക്ഷണ സാ പാകം ചെയ്യാനാണെങ്കിലും നമ്മൾ പ്രഷർ കുക്കറുപയോഗിക്കുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതാണ് ഒരു വീട്ടമ്മക്ക് ഏറ്റവും നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ നാടക്കാനായിട്ട് ഇപ്പം ഭക്ഷണം പാകം ചെയ്യാനായിട്ട് പ്രഷർ കുക്കറാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത് തുറന്നുള്ള പത്രങ്ങളിൽ വെച്ചാൽ നമുക്ക് സമയനഷ്ടവ ഗ്യാസ് നഷ്ടവ അങ്ങനെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും അതെ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രഷർ കുക്കറിനാണ് ഇന്നത്തെക്കാലത്ത് എല്ലാ വീട്ടമ്മമാരും കൂടുതലായിട്ടുപയോഗിക്കുന്നത് പ്രഷർ കുക്കറാണ് അതുകൊണ്ട് പ്രഷർ കുക്കറിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്